എൻ്റെ ചെറുപ്പക്കാലത്തൊക്കെ വീട്ടിൽ പശു ആട് എന്ന കന്നുകാലികളെ ഒക്കെ വളർത്തുമായിരുന്നു അന്നൊക്കെ പശുവിനു തീറ്റി ഉണ്ടാക്കാൻ വേണ്ടി പാടവരമ്പുകളിൽ പോയി പുല്ലു ചെത്തിയും വൈക്കോൽ ശേഖരിച്ചുമൊക്കെയാണ് പശുവിനെ വളർത്തിയിരുന്നത് അങ്ങനെ നല്ല പ്രകൃതിദത്തമായ പാലും ജെയ് നല്ല നല്ല ഉത്പന്നങ്ങളും നെയ്യും അങ്ങനെയുള്ള തൈരുമൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വളർത്തിയിരുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും വീട്ടിൽ ആടിനെ വളർത്തുകയും അതിൽനിന്ന് പാലെടുത്ത് മക്കൾക്കു കൊടുക്കുകയും അതു രോഗപ്രതിരോധശക്തി ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാനും എൻ്റെ മക്കളെയൊക്കെ അങ്ങനെയാണ് വളർത്തിയത് പിന്നീട് അവർക്ക് വലുതായി അവരുടെ മക്കൾ വലുതായി പോയപ്പോൾ അവർക്ക് ഇപ്പം കിട്ടുന്ന ആ പാലൊക്കെ വെച്ച് ഉപയോഗിക്കുന്നുള്ളുവെങ്കിലും പിന്നെ അതു പിന്നെ ഇപ്പോൾ കഫക്കെട്ടിനൊക്കെ പാല് ഉപയോഗിക്കുന്നത് അത് പിള്ളേർക്ക് ബുദ്ധിമുട്ടായിട്ടു വന്നതുകൊണ്ട് എങ്കിലും നല്ല പാലുകൾ എങ്കിലും കിട്ടുന്ന നല്ല സ്ഥലത്തു നിന്നു പാലുകൾ ശേഖരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ആ ഞങ്ങളുടെ ഒക്കെ കാലത്തെന്നു പറഞ്ഞാൽ പാ പാടവരമ്പുകളിൽപോയി പുല്ലു ചെത്തി അങ്ങനെ പുല്ലുചെത്തി ഒക്കെയാണ് പശുവിനെ വളർ വളർത്തിക്കൊണ്ടിരുന്നത് അന്ന് നേരം വെളുത്തെഴുന്നേറ്റ് പശുവിനെയും ആടിനെയുമൊക്കെ കുളിപ്പിച്ച് കഴുകിവൃത്തിയാക്കി അകിട് ഒക്കെ കഴുകി പാൽ ഉചിതമായ പാല് കറന്നെടുത്താണ് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ബാക്കിവരുന്നത് മറ്റുള്ള വീടുകളിൽ അവരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും അതു കാരണം ആ വിഷലിപ്തമല്ലതല്ല മാലിന്യമല്ലാത്ത പാലുത്പന്നങ്ങൾ വീട്ടിലുണ്ടാക്കുവാനൊക്കെ സാധിച്ചു ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുമില്ലാ പുല്ലുകളാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൊടുക്കാനുള്ള എല്ലാ എ കന്നുകാലിതീറ്റികൾ മേടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള പിണ്ണാക്ക് പുളിയരി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വലിയ തോതിൽ വില കൂടുകയും ചെയ്തതു കാരണം വീട്ടിലതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകാരണം ഇപ്പോൾ അതിനെ വളർത്തുന്നത് കുറവായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും വീടുകളിൽ നിർ ഉള്ള പശുക്കളെ പശുക്കളെ വളർത്തുന്ന സ്ഥലത്തു തന്നെ പാലു മേടിച്ച് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ട് പി പിന്നെ രാവിലെയും പിന്നെ പു പശുപ്പെരേലാണെങ്കിൽ രാവിലെ കൊതുക് കൊതുകും കൊതുകിനുവേണ്ടി പുക ഇടുകയും വൈകുന്നേരം കൊതുകിനുവേണ്ടി പുക ഇട്ടു കൊതുകിനെ അകറ്റുകയും പശുക്കൾക്കു വേണ്ടുന്ന പിന്നെ കാറ്റ് ലഭ്യമാകാൻ എല്ലാ ഓ കുമ്മു കും പശുവിൻ്റെ തൊഴുത്തിലൊക്കെ ഭാൻ അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ അതിന് മിന്നെ കുളമ്പുരോഗമോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടുന്ന ചികിത്സകളും ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ട് പണ്ടേ ഇങ്ങനെ ഉള്ള അസുഖങ്ങളൊന്നുമില്ല കാരണം നമുക്കു കിട്ടുന്ന കൈതീറ്റി കൈയ്യുന്ന പുല്ല് ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചാണ് പശുവിനെ വളർത്തിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ആ ഒരു സാഹചര്യമില്ല ഇ ഇമ് അന്ന് കണ്ട കണ്ടത്തിൻ്റെ വരമ്പിലൊക്കെ ഇഷ്ടംപോലെ പുല്ലുകൾ നിൽക്കും ആ പുല്ലുകൾ ഒക്കെ വെട്ടിയെടുത്തു കൊണ്ടു വന്ന് പശുവിന് കൊടുക്കും ഇതിന് ഇപ്പോൾ കളനാശിനിപ്രയോഗവും കീടനാശിനിപ്രയോഗവും കാരണം നമ്മൾക്ക് പാടവരമ്പങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലത്തോ പോയി പുല്ല് ചെത്തിക്കൊണ്ടു വന്നു കൊടുക്കാൻ പറ്റത്തില്ല അതു കാരണം കർ ഇന്നിപ്പോൾ കന്നുകാലി വളർത്തലും കുറവാണ് അതിനു വേണ്ടിയിട്ടു സമയം ചിലവഴിക്കാനും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അന്ന് നമ്മുടെ വീടുകളിലെല്ലാം പാല് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പാല് കൊണ്ടു കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ അന്നന്ന് മാതാപിതാക്കൾ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു അന്ന് സൊസൈറ്റികൾ കൂടെക്കൂടെ മുക്കുകളിലില്ല സൊസൈറ്റികളും പാലുത്പന്നങ്ങളും കൊണ്ടു കൊടുക്കാനുള്ള സൊസൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പശു വളർത്തലോ പാലുത്പന്നങ്ങൾ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതു കൊണ്ട് ഇപ്പോൾ എല്ലാവരും അതിൽ നിന്നൊക്കെ പിന്മാറി ഇരിക്കുവാണ് എങ്കിലും ഒരു ആടിനെ ആണെങ്കിലും വളർത്തി അതിൽ നിന്നും പാലെടുത്തു കുഞ്ഞുങ്ങൾക്കു കൊടുക്കാനാണ് ഇന്നുള്ള ഇന്ന് ആർക്കും അതിനുള്ള സാഹചര്യമില്ല അതു ചെയ്യുന്നുമില്ലാ അന്ന് പ്രയോഗിച്ച് ചെയ്തതിൻ്റെ ഗുണമൊക്കെ ഇന്നു നമ്മുടെ തലമുറ അനുഭവിക്കുന്നുവെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ നിന്ന് എന്തു സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ